പത്രങ്ങളാണേൽ തന്നെയും നമ്മൾടെ എല്ലാ സ്ഥലത്തുള്ള പത്രങ്ങള് തന്നെയാണ് സുപ്രഭാതം പിന്നെ സുപ്രഭാതം അങ്ങനെ ഒരുപാട് മനോരമ ന്യൂസ് അങ്ങനെയുള്ള ഒരുപാട് പത്രങ്ങളും പിന്നെ പിന്നെ ടിവി ചാനലുകളും വാർത്തകളാണെങ്കിൽ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മീഡിയ വൺ അങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ട് ഞങ്ങളിപ്പോൾ ടിവിയില് വാർത്ത കാണുകയാണെങ്കിൽ ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ചാനൽ വച്ചു നോക്കും പിന്നെ അതിലെ എന്റർടൈൻമെന്റ് പരസ്യം ഒക്കെ വരുകയാണെങ്കിൽ നമ്മള് വേറെ ചാനലുകളൊക്കെ വെച്ച് കാണാറൊക്കെ ഉണ്ട് ന്യൂസ് കാണാൻ ഇപ്പോൾ ഒരുപാട് ചാനലുകളും മൊബൈൽ ഫോണും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമ്മളാണങ്കിലും നമ്മുടെ കുടുംബം ആണങ്കിലും ഫോണിലൂടെയും ടിവിയിലൂടെയൊക്കെ നമ്മള് വാർത്തകളും എല്ലാ പ്രദേശത്ത് നടക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മള് ഇതിലൂടെ അറിയുന്നൊക്കെ ഉണ്ട് ടിവി വാർത്താ ചാനലുകളുടെ പേര് എന്ന് പറഞ്ഞാല് ഏഷ്യാനെറ്റ് ന്യൂസ് മനോരമ ന്യൂസ് മീഡിയ വൺ അങ്ങനെ ഒരുപാട് ചാനലുകൾ ഉണ്ട് അവയില് നമ്മുടെ കുടുംബം കാണുന്നത് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാല് ഈ ഈ ചാനലുകൾ എല്ലാം നമ്മള് കാണുന്നവരൊക്കെയാണ് എല്ലാ വയനാട്ടിന്റെ കാര്യങ്ങൾ അറിയാനാണ് എങ്കിലും മലനാടിൻ ന്യൂസ് പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ന്യൂസ് അറിയാനാണെങ്കില് കുറെ അധികം രണ്ടു മൂന്നു ചാനലുകളുണ്ട് ഇതൊക്കെ കാണാവുന്നതാണ്